ഞാൻ അതായത് ഒരു പാചകരീതിയിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു അസാധാരണമായ ചേരുവ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പെരുംജീരകമെന്ന് തന്നെ പറയാനുള്ളൂ ആദ്യമൊന്നും എനിക്ക് ഇങ്ങനെ പെരുംജീരകത്തിൻ്റെ ഇത് വലിയ അറിയില്ലായിരുന്നു അപ്പം ആദ്യമൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാം ഈ ചെറിയ ജീരകമില്ലെ നമ്മൾ കറിക്കൊക്കെ കൂടുതലായിട്ടും ഉപയോഗിക്കുന്ന ചെറിയ ജീരകം തന്നെയായിരുന്നു ഞാൻ അതായത് പത്തലിലും അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ ഉപയോഗിക്കുക പിന്നെയാണ് ഞാൻ ചിന്തിച്ചത് പത്തലിനൊന്നും ഇത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു വ്യത്യാസം അപ്പോൾ ഒന്നും പെരുംജീരകത്തിൻ്റെ കാര്യം അറിയില്ലായിരുന്നു പിന്നെയാണ് നമ്മളിങ്ങനെ യൂട്യൂബിലൊക്കെ നോക്കിയപ്പോൾ ആണ് പത്തലിൽ പെരുംജീരകമാണ് ചേർക്കുകയെന്ന് അറിഞ്ഞത് അപ്പം ഞാൻ വേഗം പെരുംജീരകവും ഒക്കെ ചേർത്ത് അരക്കുകയും ചെയ്തു കുറച്ചതിൽ ഇടുകയും ചെയ്തപ്പോൾ തന്നെ പത്തലിന് ഭയങ്കര ടേസ്റ്റായിരുന്നു പിന്നെ അതുപോലെതന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കടലക്കറി ഗ്രീൻ പീസ് കറി അങ്ങനെയുള്ള കറികളൊക്കെയില്ലേ പിന്നെ അതായത് വെജിറ്റബിൾ മസാലക്കറിയൊക്കെ വെക്കുമ്പോൾ നമ്മൾ ഗ്രീൻ പീസ് ചേർത്തിട്ടുണ്ടെങ്കിൽ അതിന് ഭയങ്കര ടേസ്റ്റ് അതെ ഗ്രീൻ പീസല്ല പെരുംജീരകം ചേർത്താൽ ഭയങ്കര ടേസ്റ്റായിരിക്കും അപ്പം അത് ഞാൻ അന്നാണ് മനസ്സിലാക്കിയത് പിന്നെ എനിക്ക് അമ്മയാണ് പറഞ്ഞത് പെരുംജീരകമാണ് ചേർക്കേണ്ടത് ചെറിയ ജീരകം അല്ലയെന്ന്